സ്കൂളിലൊക്കെ ഈ പറഞ്ഞതു പോലെ ചിത്ര രചനാ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അപ്പം എല്ലാവരോടും അതായത് എല്ലാവരെയും അതായത് ചിത്രം വരക്കാൻ അറിയാവുന്നവർ മാത്രം അങ്ങനെ ഉൾപ്പെടുത്തിയല്ലാ അല്ലാതെ എല്ലാവരെയും തന്നെ ഒരു കാര്യം ഇപ്പോൾ ഒരു വീട് വരയ്ക്കുക അത് ഓരോരുത്തരുടെ മനസ്സിലെ ഓരോരോ ചിത്രങ്ങളായിരിക്കും തെളിഞ്ഞ് വരിക അതവർ വരക്കും ചിലരുടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ചിലരുടെ അത്ര ഒക്കില്ലായിരിക്കാം പക്ഷേ എല്ലാ കഴിവും മനുഷ്യന് ദൈവം കൊടുക്കില്ലാ എന്നുതന്നേ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ചിലർക്ക് വരയ്ക്കാനൊക്കെ നല്ല കഴിവായിരിക്കും ചിലർക്ക് അത്ര പോരാ അപ്പം ഈ സ്കൂളുകളിലൊക്കെ വരക്കാൻ കഴിവുള്ളവരെ അവരെ തേടിപ്പിടിച്ച് അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നും പറഞ്ഞ് വരക്കാനറിയാത്തവരെ അവരെ ഉപേക്ഷിക്കാറുമില്ല ഇപ്പം ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചാൽ ഒരു ക്ലാസിലെ എല്ലാവരെയും തന്നെ സംഘടിപ്പിച്ച് തന്നെ ഒരു കണ്ടെൻറ്റ് കൊടുത്തിട്ട് അത് വരയ്ക്കാൻ പറയും അവരത് എല്ലാവരും നന്നായി തന്നേ വരക്കും നന്നായിൽ വരച്ചതിൽ ചിലരെ നമ്മൾ സെലെക്റ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പം അങ്ങനെ മത്സരങ്ങൾ തുടരുന്നതോടനുസരിച്ച് അറിയാത്തവർ വരെ എന്നാൽ അതൊന്ന് ശ്രമിക്കാം എന്ന രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് ചെയ്യും അങ്ങനെ അത് വലിയൊരു കാര്യമാണ് കാര്യം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞായിരിക്കും ഇപ്പോൾ ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ താത്പര്യമുള്ളവർ വരാൻ പറയുമ്പോൾ ഓഹ് എന്നെക്കൊണ്ട് പറ്റില്ലാ എനിക്ക് ചിത്രമൊന്നും വരക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരായിരിക്കും മിക്കവരും അപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ച് ആ ഒരു മത്സരം നടത്തുമ്പം എന്നാലൊന്ന് ശ്രമിച്ചാൽ കൊള്ളാമെന്ന രീതിയിൽ തന്നേ എല്ലാവരും അതിലേക്ക് മുൻപോട്ട് വരും അപ്പോൾ ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെയെന്ന് വെച്ച്കഴിഞ്ഞാൽ എല്ലാവരെയും മത്സരത്തിൽ പങ്കെടുപ്പിച്ച് അങ്ങനെ അതിൽ നിന്ന് ഒരു വിന്നറിനെ കണ്ടെത്തുന്നതായിരുന്നു അവിടെയെല്ലാമുള്ളൊരു രീതിയെന്ന് പറയുന്നത്